ഞങ്ങളുടെ സംസ്ഥാനത്തിനു തന്നെ കേരളമെന്നു പേരു വരാൻ കാരണം തെങ്ങധികമുള്ളതു കൊണ്ടാണ് കയറാമെന്നു വെച്ചാൽ തെങ്ങെന്നുള്ള അർത്ഥം കൂടെണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലാണെങ്കിലും കൂടുതാലായിട്ടു കൃഷി ചെയ്യുന്നത് നെല്ല് നെല്ല് പിന്നെ വാഴ തെങ്ങ് അതൊക്കെയാണ് അപ്പം ഈ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തെങ്ങാണ് തെങ്ങവിടെ നിൽക്കട്ടെ ഞാൻ പറയാം പിന്നെ നെല്ല് നെല്ല് ഞങ്ങടിവിടെ നെല്ലൊക്കെ അധികം കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വീടിൻ്റടുത്തു തന്നെ കൊറേ നെല്ല് നെല്ല്കള്ള് ഉള്ള പടൊണ്ട് അപ്പ ഞങ്ങളിവിടെ ഇപ്പൊ ആദ്യോക്കെ ആരുന്നെങ്കി സ്ത്രീകള് എന്താ എന്താ പാട്ടൊക്കെപ്പാടി എന്താ കൊയ്യുന്നൊരിത് ഞാൻ കഥകളിലും അതുപോലെ കവിതകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പം ആണെങ്കിൽ ഈ പാടത്തു വലിയൊരു മഷീൻ കൊണ്ടു വന്നിട്ടുണ്ട് മഷീനു കൊണ്ടാണ് നമ്മളീ നെല്ലൊക്കെ കൊയ്തെടുക്കുന്നത് അപ്പം ഈ മഷീനു കൊണ്ട് നെല്ല് കൊയ്തെടുക്കുന്ന കാണാൻ വേണ്ടിയിട്ടുള്ളൊരാകാംക്ഷ കൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരെല്ലാവരുമീ പാടത്തേക്കു പോകും അപ്പം ഇതു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ നെല്ലെന്നു പറയണത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കുന്നൊരു ഒരു സാധ ഒരു ഒരു ധന്യ വിളയായിട്ടാണെനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് ആദ്യം നമുക്ക് കാളയോ അല്ലെങ്കിൽ ട്രാക്റ്റർ കൊണ്ട് നമ്മളാദ്യം മൊത്തം ഉഴുതു മറിച്ചു പിന്നെ ആ നെല്ലിൻ്റെ നെല്ലവിടെ വിതച്ച് അത് കൊയ്ത് അത് ഞാറു പറിച്ചത് കൊയ്തെടുത്തത് അരിയായി കിട്ടണമെങ്കിൽ കുറച്ചു ബുദ്ധിമുട്ടു തന്നെയാണെന്നു നമുക്കിത് കാണുമ്പം അറിയാം ഞങ്ങളുടെ മലപ്പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതു നെല്ലും തെങ്ങും തന്നെയാണ് തെങ്ങിന് തെങ്ങെടുക്കണങ്കിൽ തെങ്ങിനേറ്റവും കൂടുതലിടുന്നത് ഉപ് ഉപ്പിട്ടിട്ട് തെങ്ങ് വെത്ത ഉപ്പു തെങ്ങിനു വളരാൻ കൂടുതൽ ഉപകാരപ്രദമാണെന്നു ഞാൻ അമ്മയുടെ വായിൽ നിന്നു ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ തെങ്ങിൻ്റെ തോ തെങ്ങിന്തോപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ കോഴിക്കട്ടും ആട്ടിൻ കാട്ടമൊക്കെ ഇട്ടിട്ട് എന്താ പറയുക തെങ്ങ് വളർത്തുന്നെയാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ ഈ കേരളീയർക്ക് വാഴയിലില്ലാതെ ഒരു പരിപാടിയില്ലയെന്നു ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് അപ്പം ഈ വാഴ ഈ വാഴ കൊണ്ടു വാഴയാണെങ്കിലോ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് വാഴയുണ്ട് അപ്പം ഈ വാഴയുടെ തറ്റമ്മുതൽ അടി വ അടി മുതൽ തറ്റം വരെ എല്ലാതും നമ്മൾ ഭക്ഷിക്കുന്നതും എന്താ ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഈ വിഷൂനാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഒരു കല്യാണത്തിനാണെങ്കിൽപ്പോലും ഒരു വാഴയുടെ ഇലയില്ലാത്ത ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് വാഴയും കൂടുതലായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് വാഴയുടെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുണ്ടന്നെ വാഴപ്പഴത്തിന് വളരായിട്ട് സ്വാദാണ് പിന്നെ വാഴപ്പ വാഴപ്പഴം കൊണ്ടു തന്നെ ഇവിടെ പല തരത്തിലുള്ള വിഭവങ്ങളുണ്ടാക്കാറുണ്ട് ഈ ചിപ്സൊക്കെ കേരളത്തിൽ വളരേ പ്രചാരം നേടിയൊരു സംഭവമാണ് അതുപോലെ തന്നെ എന്താ ഈ വാഴ വാഴയുടെ കൂമ്പു കൊണ്ട് ഓരോ സംഭവങ്ങൾ തോരനായിട്ടും ഉപ്പേരിയായിട്ടും നമ്മൾ വെക്കാറുണ്ട് പിന്നെ കേ ഈ കേരളത്തിൽ കൂടുതലായിട്ട് തെങ്ങും വാഴയും നെല്ലൊക്കെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നതു ഞാൻ കൂടുതലായിട്ടു കണ്ടിട്ടുള്ളത് തെങ്ങും നെല്ലൊക്കെയാണ്